ഹലോ കേരളാ വിഷനിലെ ജിനീഷ് ഏട്ടൻ അല്ലേ ചേട്ടാ എൻ്റെ വീട്ടിൽ ഇൻറ്റർനെറ്റ് കണക്ഷൻ കുറച്ചു ദിവസമായി സ്ലോ ആണ് അപ്പോൾ തീരെ സ്പീഡ് കിട്ടുന്നില്ല നെറ്റ് ആണെങ്കിൽ തീരെ ഉപയോഗിക്കുന്നുമില്ല ഞാൻ നെറ്റ് കണക്ഷൻ തീർന്നു എന്നാണ് വച്ചത് പക്ഷെങ്കിൽ ഡേറ്റ് തീരാൻ ആയിട്ടില്ല എന്നിട്ടും നെറ്റിൻ്റെ ഇൻർറ്റർനെറ്റ് സ്പീഡ് വളരെ കുറവാണ് എവിടേ എങ്കിലും എന്തെങ്കിലും മോഡത്തിൻ്റെ എന്തെങ്കിലും കുഴപ്പം ആണോ എന്നൊന്ന് വന്നു ചെക്ക് ചെയ്യാൻ പ്റ്റുമോ എന്നു നോക്കണം പിന്നെ കേബ്ള് എവിടെ എങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് റെഡി ആക്കി തരണം ഇൻറ്റർനെറ്റ് പെട്ടെന്ന് തന്നെ റെഡി ആക്കി തരണം ഇപ്പം അത്യാവശ്യമുള്ളതാണ് നെറ്റിലൂടെയാണ് എൻ്റെ ജോബൊക്കെ നടത്തുന്നത് അതുകൊണ്ട് ഇൻറ്റർനെറ്റ് കണക്ഷൻ വേഗം തന്നെ റെഡി ആക്കി തരണം ഒരുപാട് മെയിൽ അയക്കാനൊക്കെ ഉള്ളതാണ് മോഡത്തിനും തീരെ സ്പീഡ് ഇല്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ട് കണക്ഷനും റെയ്ഞ്ച് കുറഞ്ഞു വരുന്നുണ്ട് ദൂരപരിധി വളരെ കുറവായപ്പോഴുള്ള മോഡത്തിന് അപ്പോൾ അതുമൊന്ന് റെഡി ആക്കി തരണം മോഡത്തിന് ഇൻറ്റർനെറ്റ് സ്പീഡ് തീരെ കുറവാണ്